ഹലോ നമസ്ക്കാരം ടീച്ചർ ആ ഞാൻ എൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട് സ്കൂളിൽ പേര് ശ്രീജിത്ത് അവൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

അവൻ എങ്ങനെയുണ്ട് ടീച്ചറേ പഠനം പഠനത്തിലൊക്കെ

ആ അതെയോ

അതെയോ ടീച്ചറെ അവൻ വീട്ടിലിരുന്ന് നന്നായി പഠിക്കുന്നുണ്ട് ടീച്ചറേ നല്ല അവനങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമുള്ള കുട്ടിയല്ല പിന്നെയെന്തു കൊണ്ടാണ് സ്കൂളിൽ വന്നിട്ടാകുമ്പോൾ അവൻ ഇങ്ങനെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നത്

അതെ ആ ഒരാൾ ഒരാളാണ്

ആ ആ അതു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൻ വീട്ടിൽ വരുമ്പോൾ മുതൽ ആ ആ ഏകാന്തത മാറികിട്ടുമെന്നാണോ ആ ആ ആ ആ ടീച്ചറേ പിന്നെ ആ അതുകൊണ്ടു ഞാൻ ടീച്ചറോട് ഒരു കാര്യംകൂടി അപേക്ഷിക്കാനാണ് വിളിച്ചത് അവന് മറ്റ് മറ്റു കുട്ടികളുടെ കൂടെ ഇടപെട്ട് കളിക്കുന്ന സമയത്ത് അവൻ ഭയങ്കര അക്രമാസക്തനാകുന്നുണ്ടോ എന്നുള്ളതു കൂടിയൊന്നു ശ്രദ്ധിക്കണമായിരുന്നു കാരണം ആ ആഹാ അത് ആ ആ

ഉം ആ ആ ശരി ശരി ആ ആ ആ ശരി ആയിക്കോട്ടെ ടീച്ചർ അപ്പോൾ ശരി ടീച്ചർ വളരെയേറെ നന്ദി മോൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് വളരെയേറെ നന്ദി ആ